ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ ഈ കാലത്ത് വളരെയധികം ആളുകൾ തന്നെ ജോലിക്കായ് ശ്രമിക്കുന്നൊരു മേഖല തന്നെയാണ് വളരെയധികം കൗതുകമുണർത്തുന്ന ഒരു ജോലി മേഖല തന്നെ ഇത് ഭൂമി വിട്ട് പുറത്ത് പോകുകയും പിന്നെ പുറത്ത് ചെന്ന് വേറെ ഗ്രഹങ്ങളിലും പിന്നെ പേടകത്തിലും താമസിക്കു താമസിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് തന്നെ ഇങ്ങോട്ട് സന്ദേശങ്ങളയച്ച് പിന്നെ വല്ലാത്തൊരു അവിടെ ഒക്കെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഇത് ഇങ്ങനെ അറിയാൻ വേണ്ടി വളരെയധികം ആളുകൾ തന്നെ ശ്രമിക്കുന്നുണ്ട് അതായത് ഇത് പഠിക്കാൻ എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട് എനിക്കും ഒരു ആഗ്രഹമുണ്ട് ഇത് പഠിച്ചാൽ കൊള്ളാമെന്ന് പക്ഷേ ഇത് പഠിക്കണമെങ്കിൽ തന്നെ വളരെയധികം പൈസ ചിലവേറിയതും പിന്നെ നല്ല ബുദ്ധിയും ക്ഷമയും കാര്യങ്ങളൊക്കെ തന്നെ വേണം പിന്നെ ധൈര്യവും വേണം പിന്നെ ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ലൈഫിനൊരു ഗ്യാരൻറ്റി ഉണ്ടാകുകയില്ല അതായത് നമ്മളിപ്പോൾ പേടകത്തിൽ കയറി വേറെ ഇത് ചെന്ന് പിന്നെ തിരിച്ച് വരും എന്ന് നമുക്കൊരു ഉറപ്പും കാര്യമൊന്നും പറയാൻ പറ്റില്ല